ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടവിധം പിന്തുണ എന്താ പറയുക പുലർത്താതെ എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലാന്ന് വേണമെങ്കിൽ പറയാം കാരണമെന്നു വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ വരും തോറും സാങ്കേതികവിദ്യയുടെ മാറ്റങ്ങള് കാരണങ്ങള് കൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലിപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിലും ഫോണിൻ്റെ ഉപയോഗം ആണെങ്കിലും അതൊക്കെ നമുക്ക് നല്ല രീതിയില് അതിനെക്കുറിച്ച് അറിവ് കിട്ടണമെങ്കില് കുറച്ച് ടൈമ് കാര്യങ്ങളൊക്കെ എന്തായാലും ആവശ്യമുണ്ട് ഇപ്പോൾ ഒരു ടൈപ്പിംഗ് പിന്നെ ഇൻറ്റർനെറ്റ് വഴി നമ്മളോരോന്ന് സർച്ച് ചെയ്യുക ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് യുഗമാണ് അപ്പം നമുക്ക് കമ്പ്യൂട്ടറിലോരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കില് അതിന്റേതായ സമയവും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ച് വന്ന് അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടിവരും അതിനോടായിട്ടൊരു പൊരുത്തപ്പെട് പൊരുത്തപ്പെട്ട് വരണമെങ്കില് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എന്തായാലും ആവശ്യമുണ്ട് പിന്നെ ഓരോ പാഠ്യപദ്ധതിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അങ്ങനെ അവർക്ക് വേണമെങ്കില് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കില് കുറച്ചും കൂടെ നന്നായിട്ട് അവര് ഇതിനോടെല്ലാം ഉൾക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നതാണ്